ഇന്ത്യയിലെ ഗതാഗതമാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചുവരുന്ന ഒരു ഗതാഗതമാർഗ്ഗം അല്ലേൽ ഗതാഗതസംവിധാനമെന്ന് പറയണത് ഒന്ന് നടക്കൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്നുകൊണ്ടുതന്നെയായിരുന്നു ഒരുസ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ എത്ര ദൂരമായിരുന്നെങ്കിലും അന്നത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞതുകാരണം അന്നത്തെ ആൾക്കാർ നടന്നുകൊണ്ടുതന്നെയാണ് പലയിടത്തും പോയിക്കൊണ്ടിരുന്നത് പിന്നെ അന്നത്തെ വേറേ ടൈപ്പ് സംവിധാനമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കാളവണ്ടികളായിരുന്നു നമുക്കെല്ലാവർക്കും പരിചയം ഉള്ളപോലെ കാളവണ്ടികൾ അന്നത്തെ ആൾക്കാർ ഈ ഫാമൗസ് പോലത്തെ കർഷകർ പോലത്തെ ആൾക്കാരുടെയവിടെ കാളകളുള്ളതുകാരണം കാളവണ്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ രാജകുടുംബങ്ങളിനെപ്പറ്റി പറയുകയാണെങ്കിൽ പാലൻക്വിൻസ് അല്ലെങ്കിൽ പൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പല്ലക്കുകൾ അതാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോട്ടേഷൻ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇപ്പോൾ സംവിധാനം മാറും തോറും കാലം മാറും തോറും പുതിയ പുതിയ ട്രാൻസ്പോർട്ടെഷൻസ് മോഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആകാശം ഭൂമി അല്ലെങ്കിൽ കടൽ ഈ മൂന്ന് വഴിയിൽക്കൂടിയും ഗതാഗതമാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഗതാഗതസംവിധാനങ്ങൾ വന്നുതുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗതാഗത സംവിധാനമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്സുകളാണ് ഇതിനകത്തിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടെന്നു പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കെ എസ് ആർ ടി സീസ് അല്ലേൽ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അല്ലെങ്കിൽ പറയുന്നതുപോലെ ട്രെയിൻസ് അല്ലേൽ മെട്രോസ് മെട്രോസ് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും കൺസെർവേറ്റീവാണ് അത്രയും എനർജി കുറവേ വേണ്ടൂ അത്രയും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണ കാരണം അത്രയും ബയോഫ്യൂൽസിൻ്റെ കൺസേർവഷനുണ്ട് ബയോഫ്യൂൽസ് യൂസ് ചെയ്യാത്തതുകൊണ്ടുതന്നെ അത്രമാത്രം എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമുക്ക് കുറക്കാൻ പറ്റും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുവരുന്ന റോട്ടിലെ ട്രാൻസ്പോർട്ടേഷൻസ് ഇതല്ലാണ്ട് ആകാശത്തുകൂടെ പറയുകയാണെങ്കിൽ എയ്റോപ്ലെയിൻസ് എയറോപ്ലെയിൻസെന്ന് പറയുമ്പോൾ കേറോസീനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് മണ്ണെണ്ണ മണ്ണെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പൊല്യൂഷൻ ഉണ്ടാകുമെങ്കിലും വേറെ വഴികളൊന്നും ഇല്ലാത്തതുകാരണം ഏറ്റവും കൂടുതൽ ഏറോപ്ലെയിൻസ് ഹെലികോപ്റ്റേഴ്സ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരു രാജ്യത്തുനിന്ന് വേറേ രാജ്യത്തേക്ക് പോവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോവണമെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏറോപ്ലെയിൻസ് അല്ലെങ്കിൽ ട്രെയിൻസാണ് പിന്നെ കടൽമാർഗ്ഗമാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽനിന്ന് ആൻറ്റമാനിലേക്ക് പോവണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഷിപ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയ്നായിട്ട് ഇന്ത്യയിൽ പറയപ്പെടുന്ന ഗതാഗതമാർഗ്ഗങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാലത്ത് പെട്രോളിൻ്റെ കാശുകൂടിവരിക അല്ലെങ്കിൽ ഡീസലിൻ്റെ കാശുകൂടിവരിക അതുകാരണം തന്നെ ഓരോ വണ്ടികൾക്ക് വേണ്ട ചിലവും കാര്യങ്ങളും കൂടിവരികയാണ് അതൊക്കെയാണ് പിന്നെ അതുമാത്രല്ല വെല്ലുവിളികളെന്ന് പറയുമ്പോൾ ഈ വണ്ടികൾ ഓരോത്തരും സ്വന്തമായിട്ടുള്ള വണ്ടികളുപയോഗിക്കുമ്പോൾ അതിനോടത്രയും തന്നെ പൊല്യൂഷനും കാര്യങ്ങളും കൂടിവരുന്നു ഈ പൊല്യൂഷൻ കുടിവരുന്നതുകൊണ്ടുതന്നെ അത്രമാത്രം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കൊരിപ്പോൾ ഒരു വെല്ലുവിളിയാണ് ഇതിനി ഇപ്പോൾ ഇങ്ങനത്തെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അവെയർനെസ്സും കാര്യങ്ങളും ഉണ്ടാക്കുക ആൾക്കാരിൽ എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം എങ്ങനെ സ്വന്തം വണ്ടികൾ യൂസ് ചെയ്യണത് കുറയ്ക്കണം അങ്ങനെ എത്രമാത്രം പൊല്യൂഷൻ കുറക്കാൻ പറ്റും എത്രമാത്രം എലക്ട്രിസിറ്റി എലക്ട്രിസിറ്റി കൺസേർവ് ചെയ്യാൻ പറ്റും അങ്ങനെ പൊതുജനങ്ങളിലൊരു അവെയർനെസ്സ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അത്രമാത്രം നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് സംരക്ഷിക്കാം പിന്നെ അത്രമാത്രം നമുക്ക് ബയോഫ്യൂൽസ് നമുക്ക് ലാഭിക്കാം അത്രമാത്രം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത്രമാത്രം അത് ലാഭകരമാകും